കൃഷി ഫിഷറീസ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വ്യവസായങ്ങളെല്ലാം കൂടുതലും കണ്ണൂരിൽ ആണുള്ളത് ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന കൃഷി ഇനങ്ങൾ നെല്ല് തേങ്ങ കശുവണ്ടി കപ്പ അടക്ക എന്നിവ ഈ കണ്ണൂരിൽ ധാരാളമായിട്ട് വളരുന്നുണ്ട് പിന്നെ ഒരുപാട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പന്നിയൂരിലെ പെപ്പർ റിസർച്ച് സെൻറർ ആറളം ഉള്ള സെൻട്രൽ ഫാം കണ്ണൂരിലെ കരിമ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കൃഷിയിൽ വിവിധ വിളവുകളുടെ ഗവേഷണത്തിനും വികസനത്തിനും ഭാഗമായിട്ടുണ്ട് ഒരുപാട് ജലസേചനം ഒരുപാട് ധാരാളം നദികൾ ഒഴുകുന്നുണ്ട് ധാരാളം കടൽ ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ള ജില്ല കണ്ണൂരാന്ന് ഒരു അതുകൊണ്ട് തന്നെ ഒരുപാളം ഒരുപാട് മത്സ്യബന്ധനം തുറമുഖങ്ങൾ ഉണ്ട് ധാരാളം മത്സ്യങ്ങൾ ലഭിക്കും അതുപോലെ കല്ലുമ്മക്കായ ചെമ്മീൻ ഇവയെല്ലാം ധാരാളമായിട്ട് നമ്മുടെ കണ്ണൂരിൽ ലഭിക്കുന്നതാണ് മര മരിച്ചീനി മരിച്ചീനി മരിച്ചീനി ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂരു തന്നെയാണ് കണ്ണൂർ ഓരോ സ്ത് ഓരോ കൃഷി ഓരോ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിലും കുറച്ചു കുറച്ചു ആണെങ്കിലും കണ്ണൂർ വന്ന് കഴിഞ്ഞാൽ മരിച്ചീനി കൃഷി ചെയ്തിട്ട് കാണാം ഒരുപാട് വിളകളും ഇതും പിന്നെ ധാന്യങ്ങളും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ